ക്യാൻസർ ഹൃദ്രോഗം എന്നിവയുടെ ചികിത്സക്കൊക്കെയായിട്ട് സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ കാലത്തിനെക്കാളും എത്രയോ മെച്ചമാണിപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ അറിയാണ്ട് നമ്മളിൽ കുറെ പേര് മരിച്ചുപോകുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതേപോലെ അറ്റാക്ക് ആണെങ്കിലും ശരി പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ പകർച്ചവ്യാധി പോലെ പക പടർന്നുകൊണ്ടിരിക്കുന്നൊരു പിന്നെ രോഗമാണ് അപ്പം അതിനൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ കീമോ ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ പിന്നെ മരുന്ന് പിന്നെ ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനസഹായങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഈ ക്യാൻസർ രോഗത്തിന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൃദ്രോഗങ്ങൾക്കാണെങ്കിലും ശരി പിന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളോക്കെയുണ്ട് അദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളൊക്കെ കുറവാണ് അതായത് കുറേ അതായത് മിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ കുറവാണ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാമുണ്ട് അപ്പോൾ രോഗികൾക്കും അതൊരു വലിയ ഉപകാരമാണ് പിന്നെ ഇങ്ങനത്തെ അതായത് ഫിസിയോതെറാപ്പി കീമോ ഡയാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഗവൺമെൻ്റ് ചെയ്തുകൊടുക്കുന്നുണ്ട്